ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ അല്ലേ ആ ഞാൻ ഞാൻ എൻ്റെ എൽ കെ ജി കുട്ടിയിനേയും ഒരു സെക്കൻ്റ് സ്റ്റാൻ്റേർഡിൽ പഠിക്കുന്ന കുട്ടിയിനേയും ചേർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു ആ ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിരുന്നോ തുടങ്ങി ക്ലാസ്സ് തുടങ്ങി അല്ലേ ആ ഓക്കെ നമുക്ക് അത് വേറെ സ്കൂളിൽ പിന്നെ ഞാനിപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് അപ്പം പിന്നെ വേറൊരു സ്കൂളിൽ ചേർത്തതായിരുന്നു അപ്പം അവിടെനിന്ന് ടി സിയും വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നതാണ് ആ അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുമ്പോഴേക്കും ആ ആ എൽ കെ ജി എൽ കെ ജിയിൽ കുട്ടിക്ക് എത്രയാണ് ഡൊണേഷനൊക്കെ വരുന്നത് ആ എൽ കെ ജിയിൽ ആ ഒന്ന് നോക്കുമോ ആ രണ്ട് കുട്ടികൾ എൽ കെ ജിയിലും സെക്കൻ്റ് സ്റ്റാൻ്റേർഡിലും ആ ഒരു വർഷത്തേക്ക് വൺ ലാക്ക് ഇല്ലേ സെക്കൻ്റ് സ്റ്റാൻ്റേർഡ് ആണോ അതോ എൽ കെ ജി ആയിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം ഫുഡ് ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുകൊടുക്കണോ അതോ കൊണ്ടുവരണം അല്ലേ ആ നിങ്ങളുടെ തന്നെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ

ആ വേറെ പേയ്മെൻ്റ് ഉണ്ട് അല്ലേ ആ പിന്നെ അത് സെക്കൻ്റ് സ്റ്റാൻ്റേർഡിൽ ആ സെക്കൻ്റ് സ്റ്റാൻ്റേർഡിന് എത്രയുണ്ട് എത്രയാണ് ഫീസ് വരുന്നത് ഒന്ന് അയിമ്പത് അല്ലെ ആ അപ്പോൾ രണ്ടും കൂടി രണ്ട് അയിമ്പതിൻ്റെ അടുത്ത് വരും അ യൂണിഫോം ഒക്കെ നിങ്ങൾ പുറമേ നിന്നാണോ വാങ്ങണത് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ആക്കി തരുമോ ആക്കിത്തരും അല്ലേ അപ്പോൾ ഈ ആ പൈസ നമ്മളൾ കൊടുക്കണം ആ പിന്നെ ആ വരും അല്ലേ ആ അതുപോലെ ബുക്കിൻ്റെയോ തരും അല്ലേ ആ അതിൻ്റെയും എക്സ്ട്രാ ഫീസ് ഇല്ലേ ഇതിൽ പെടും അല്ലേ ആ അവിടെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികൾക്ക് കളിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ ഡോണേഷൻ വരും അല്ലെ ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ ഈവനിംഗ് ആ നാളെ ഞങ്ങൾ എന്തൊക്കെയായിരുന്നു കൊണ്ടുവരേണ്ടത് ടി സി ആ ഓക്കെ

ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ ഞങ്ങൾ നാളെ അങ്ങോട്ട് വരാം ആ ഓക്കെ ശരി ഓക്കെ